വീട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ മാനന്തവാടിയെന്ന് പറയുന്ന സ്ഥലത്ത് വള്ളിയൂർക്കാവെന്ന് പറയുന്ന മെയിൻ റോട്ടിലൂടെ വന്നിട്ട് ഒരു ചെറിയ ഒരു ടൗണിൽ നിന്ന് വരുമ്പോൾ ഇടത് സൈഡിൽ മൈത്രി നഗർ എന്നുള്ള ചെറിയൊരു പോക്കറ്റ് റോഡ് കാണാം ടാറിട്ട റോഡ് തന്നെയാണ് അതിലൂടെ വന്നിട്ട് ഒരുപാട് വരണം താഴെ വന്നിട്ട് ഒരു ടൗൺ ഹാൾ ടൗൺ ഹാൾ അല്ല ഒരു ഓഡിറ്റോറിയം ഉണ്ട് കല്യാണങ്ങളൊക്കെ നടക്കുന്ന ഒരു പാറക്കൽ ഓഡിറ്റോറിയമെന്ന് പറയും അതിൻ്റെ തൊട്ടു മുന്നിലുള്ള വീടാണ് അവിടുത്തേക്കാണ് കൊണ്ടുവരേണ്ടത്